കേരളീയരായ നമ്മുടെ മാതൃഭാഷയാണ് മലയാളം അതു മലയാളം കേൾക്കാനും പറയാനൊരു നല്ലൊരു സുഖമാണ് ഇവിടെയെല്ലാം മലയാളികളുണ്ടോ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തു പോയാലും മലയാളികളുണ്ടോ അവർ മലയാളം കിടക്കുമ്പോൾ മലയാളികളെല്ലാവരും കൂടി ഒരു പ്രത്യേക സന്തോഷമാണ് അത് അവരെല്ലാവരും കൂടി പെട്ടെന്ന് ഒരുമിച്ച് കൂടി പെട്ടെന്ന് അവർ പരിചയപ്പെടുകയും ഇന്ന നാട്ടിൽ ഇന്ന നാട്ടിലാണെന്നൊക്കെ പറയുക സംസാരിക്കുകയും ഒരു ഒരുമയോടെ അവർ ഇപ്പം അറിയത്തില്ലാത്തവരാണെങ്കിൽ പോലും മലയാളി മലയാളമെന്നു കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരിതാണ് നമുക്ക് നല്ല വായിക്കാനും സംസാരിക്കാനും ഒക്കെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് പക്ഷെ മറ്റു ഭാഷക്കാരെ സംബന്ധിച്ച് അവർ പറയുന്നത് മലയാളം ഭയങ്കര പാടായ ഭാഷയാണെന്നാണ് പക്ഷെ നമ്മൾ മലയാളികൾക്ക് എപ്പോഴും മലയാളം ഒരു ഒരു ഒരിതാണ് എല്ലാ ആഘോഷങ്ങൾക്കും മലയാളികളും മലയാള ഭാഷ ഉപയോ ഉപയോ മലയാള ഭാഷയാണ് ഉപയോഗിക്കുന്നത് പ്രസംഗം പറയാനും പാട്ട് പാടാനും പിന്നേ എഴുതാൻ പ്പാ പ കലകാ നോവൽ എഴുതാനാണെങ്കിലും സിനിമയാണെങ്കിലും കവിതയാണെങ്കിലും കഥയാണെങ്കിലും മലയാളം എഴുതാനും സംസാരിക്കാനും അതു കൈ കാര്യം ചെയ്യാനും വളരെ എളുപ്പവും ഹൃദ്യവുമാണ് കേൾക്കാൻ നല്ല കാതിന് നല്ല ഇമ്പമുള്ളൊരു ഭാഷയാണ് മലയാളം